ഹലോ ആ പറയു

പോസിറ്റിവാണ് ആ ആ എന്നിട്ട് കുറവില്ലേ ആണോ ആ മേലും കയ്യും വേദനയൊക്കെ ഉണ്ടോ ആ അത് കൊറോണ ആയതുകൊണ്ട് എന്തായാലും മേലും കയ്യും വേദനയെടുക്കും പിന്നേ നല്ല പനിയുണ്ട് പനി കൂടുന്നു അല്ലേ ആ പനി വരുമ്പോൾ ആ മരുന്ന് കഴിക്ക് കേട്ടൊ പിന്നേ മറ്റേ എന്താ പറയുക അടുത്ത് ആർക്കെങ്കിലും കോറോണയോ കാര്യങ്ങളൊ ഉണ്ടൊ ആ പിന്നെ വീട്ടുകാരുമായിട്ട് ഇടപഴകാൻ പാടില്ല കേട്ടൊ നമ്മൾ ഭക്ഷണം ആ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും നമ്മൾ തന്നെ പാത്രം കഴുകി സാനിറ്റൈസ് എപ്പോഴും ചെയ്തുകൊണ്ട് പിന്നേ റൂമിലാണെങ്കിലും മാസ്ക് യൂസ് ചെയ്യണം പിന്നേ ഇതും സാനിറ്റൈസറും യൂസ് ചെയ്യണം കൈ ഇടക്കിടയ്ക്ക് കഴുകിക്കൊണ്ടിരിക്കുക കേട്ടൊ ആ പിന്നെ അവർ ഭക്ഷണം തരുമ്പോൾ നമ്മൾ അവിടെ വച്ചുതരാൻ പറയും അതായത് നമ്മുടെ വാതിലിൻ്റെ അവിടെ വച്ചുതരാൻ പറയുക എന്നിട്ട് അവർ നീങ്ങി നിന്നെടുത്ത് കഴുകി പാത്രം കഴുകി വെക്കണം ആ പിന്നേ ഇതൊക്കെയേ ഉള്ളു പിന്നെ പിന്നെയെന്താ പറയുക പിന്നേ ഇഞ്ചി വെള്ളമില്ലേ ആ അത് നല്ലോണം കുടിക്കണം ആ മഞ്ഞൾ വെള്ളം കുടിക്കുന്നതും നല്ലതാണ്

ഇനിയിപ്പോൾ പ്രത്യേകിച്ച് മരുന്ന് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതായത് നമ്മൾ തന്നെ നമ്മളെ സ്വയം വൃത്തിയായിട്ട് സൂക്ഷിച്ച് എന്താണെന്ന് വച്ചാൽ ചെയ്തു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമുണ്ടാവില്ല ബാക്കിയുള്ളവർക്ക് പകരുകയും ഇല്ല ശ്രദ്ധിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ആ പിന്നെ പുറത്തിറങ്ങാണ്ട് മെയിനായിട്ട് നോക്കണം ദിവസം ക്വാറൻ്റൈനിൽ ഇരിക്കണം ആ ക്വാറൻ്റൈനിൽ പതിനാല് പതിനാല് ഇത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വേണം പോസിറ്റീവ് അതായത് കുറവുണ്ടോ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കിതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ ഓക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വളിച്ചാൽ മതി